സാറേ ഞാനേ കൊച്ചിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നേ

ഞാൻ പിന്നെ ജോലി ഇപ്പോഴാണ് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ഞാൻ കുറച്ച് കാലമായി ശ്രമിക്കുന്നു പക്ഷേ ഇപ്പോഴാണ് കിട്ടിയത് അപ്പം

ആ ഒരാളേ ഉള്ളൂ

ഓക്കെ ഓക്കെ ഞാൻ എന്നാൽ പിന്നെ എന്നാണ് വരേണ്ടത് സാറേ കാരണം ഞങ്ങൾക്ക് എനിക്ക് പത്താം തീയതി ജോയിൻ ചെയ്യണം പെരിങ്ങുളം സ്കൂൾ ഇല്ലേ ജി എച്ച് എസ് അവിടേക്കാണ് പിന്നെ ട്രാൻസ്ഫർ കിട്ടിയിരിക്കുന്നത് അപ്പം അന്ന് ജോയിൻ ചെയ്യണം അതിന് മുമ്പ് കുട്ടീനെ ചേർക്കാം എന്ന് വെച്ചിട്ടായിരുന്നു

ഓക്കെ ഞങ്ങൾ ടി സി വാങ്ങാൻ ഏത് സ്കൂളിലേക്ക് ആണെന്ന് അറിഞ്ഞിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് ടി സി വാങ്ങി വയ്ക്കാം എന്നിട്ട് മറ്റന്നാൾ വന്ന് ചേർക്കാം അപ്പം യൂണിഫോമും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കൂളിൽ നിന്നാണോ അതോ നമ്മൾ പുറത്തുനിന്നാണോ എടുക്കുന്നത് എന്താണ് അതിൻ്റ ഒരു ഞങ്ങൾ പിന്നെ അളവ് എടുക്കുവാണെങ്കിൽ സ്കൂളിൽ നിന്ന് പൈസ തന്നേക്കാം സ്കൂളിൽ നിന്ന് തന്നെ അടിച്ച് കിട്ടുവാണെങ്കിൽ അപ്പം അറിയാമല്ലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊടുക്കുമ്പം എന്താണ് ലേറ്റ് ആവുന്നതെന്ന് ഒരു ചോദ്യം വരുമല്ലോ

ഓക്കെ സാർ എന്നാൽ പിന്നെ ഞാൻ ഹലോ ഓക്കെ ഓക്കെ മറ്റന്നാൾ കുട്ടീനെ കൊണ്ട് വരാം പിന്നെ അന്ന് തന്നെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുവാണെങ്കിൽ ഇരുന്നോട്ടെ പോർഷൻസ് എവിടെ ഒന്നുങ്കിൽ മുമ്പിലോട്ട് ഒന്നുങ്കിൽ പുറകിലോട്ടും ആയിരിക്കുമല്ലോ അവിടെ അപ്പം സാർ കൊണ്ട് വന്നിട്ട് ഞാൻ രാവിലെ വരാം ഒരു പത്ത് മണിയൊക്കെ ആവുമ്പം വരാം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരെ ക്ലാസ്സിൽ ഇരുന്നോട്ടെ വൈകുന്നേരം വന്നിട്ട് കൂട്ടിക്കോളാം ഓക്കെ സാറേ ഓക്കെ സാറേ